നിങ്ങളോ നിങ്ങളുടെ പ്രദേശത്തെ ആളുകളോ ശക്തമായി വിശ്വസിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ ഒന്നാമത്തെക്കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒരന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തില് വിശ്വാസമുണ്ട് ഞാൻ പള്ളിയിൽ പോകും കുർബാനകളും കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങളിലൊന്നും എനിക്ക് പ്രത്യേകിച്ചിട്ടില്ല പിന്നെ കുറച്ച് മിത്തുകളിലും വിശ്വസിക്കുന്നുണ്ട് ആളുകളൊക്കെ അത്പ്പേ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതായത് കൊണ്ട് എനിക്കങ്ങനെ കറക്റ്റ് ഇന്നതില് എൻ്റെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അതൊരിക്കലും എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമല്ല അത് ഓരോ ഓരോ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞാനെന്തില് വിശ്വസിക്കണമെന്നുള്ള അത് ഒരാളുടെ ഇഷ്ടമായത് കൊണ്ട് ആ ആള് തീരുമാനിക്കണം ഞാനെന്തില് വിശ്വസിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ചിലപ്പം ചിലപ്പം എൻ്റെൻ വീടിന് എൻ്റെ നാട്ടിലെ ആൾക്കാര് ദൈവമില്ലായെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ഈ കൂടോത്രം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും അതില് അത് എനിക്കൊരിക്കലും അറിയത്തില്ല ഇങ്ങനെ ആള്കൾ വിശ്വസിച്ചിരിക്കിന്നുണ്ടോ എന്നെനിക്കൊരിക്കലും അറിയത്തില്ല അങ്ങനെയെനിക്ക് പറയാൻ സാധിക്കുകയില്ല എൻ്റെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നുണ്ടോ എന്നെനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അത് ഓരോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കൊള്ളൊര് ഒര് അവരവരെ ആ അതാതാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണതെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ നമുക്ക് യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ ഞാനൊര് കാര്യത്തില് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ദൈവത്തില് വിശ്വസിക്കുന്നുണ്ട് അത് അത്കൊണ്ടാണ് ഞാൻ ഇത്രെയും നാൾ ഇങ്ങനൊക്കെ നല്ലൊര് ജീവിതം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തില് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതല്ലാതെ ഒരു തരത്തിലുളള അന്ധവിശ്വാസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയാണെനിക്ക് പറയാൻ ഉള്ളത് പിന്നെ നാട്ടില് വിശ്വസിക്കുന്ന കാര്യം വിശ്വാസങ്ങള് അന്ധവിശ്വാസങ്ങളേക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല കാരണം അതെല്ലാം ഓരോ ആളുകളെ ആളുകളുടെ അടിസ്ഥാനത്തിലാണിരിക്കുന്നത് അവരെന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് അതവരുടെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒന്നും പറയാനുള്ള അവകാശമില്ല സോ നിങ്ങൾക്കത് മനസ്സിലായിക്കാണുവെന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളു